ഈ അടുത്ത വർഷങ്ങളിലായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ചയും വികസനവും തന്നെയാണ് കണ്ടത് ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ഐ ടി മേഖല നിർമ്മാണം തദ്ദേശീയ സ്റ്റാർട്ടപ്പുകൾ ബാങ്കിങ്ങ് ഡിജിറ്റൽ പേയ്മെൻ്റ് പുരോഗതി അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പം ഐ ടി മേഖലയിലെ കാര്യം വച്ചു നോക്കുകയാണെങ്കിലും ഈ ഒരു സാങ്കേതിക വിദ്യ മേഖലയുടെ വൻ മുന്നേറ്റവും പിന്നെ പ്രത്യേകിച്ചു സോഫ്റ്റ്വെയർ സർവീസുകൾ ബിസിനസ്സ് പ്രോസസ്സ് ഔട്ട് സോഴ്സിങ്ങ് പിന്നെ തുടങ്ങിയ മേഖലകളിൽ വലിയ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഐ ടി മേഖലയിൽ പിന്നെ പിന്നെ നിർമ്മാണ മേഖലയിൽ നോക്കുവാണെങ്കിൽ മേയ്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി പോലെയുള്ള ഗവൺമെൻ്റ് പദ്ധതികൾ പദ്ധതികൾ വ്യവസായികൾക്കും പിന്നെ നിർമ്മാണ മേഖലയ്ക്കും പ്രോത്സാഹനം നൽകി രാജ്യത്തെ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട് പിന്നെ തദ്ദേശ സ്റ്റാർട്ടപ്പുകളും ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് മേഖല പ്രത്യേകിച്ചു ഈ കോമേഴ്സ് ഫിൻടേക്ക് ഓൺലൈൻ സേവനങ്ങൾ തുടങ്ങിയ മേഖലയിൽ വലിയ വളർച്ച കണ്ടു വന്നിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് പേയ്മെൻ്റ് ഓല തുടങ്ങിയ കമ്പനികൾ വലിയ രീതിയിൽ സമ്പത്ത് വ്യവസ്ഥയെ ആക്കം കൂട്ടിയിട്ടുണ്ട് പിന്നെ ഗ്രീൻ എനർജിയും പുനപ്രയോഗം പുനരൂപയോഗം പുനരുപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പ്രത്യേകിച്ചു സൗരോർജം പിന്നെ അതിൽ നിന്ന് ഉണ്ടാകുന്ന വൈദ്യുതി ഉൽപ്പാദനവും വളരെ അധികം വികസിപ്പിച്ചു രാജ്യത്തിൻ്റെ വൈദ്യുതി വിപണിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ബാങ്കിങ്ങ് ഡിജിറ്റൽ പേയ്മെൻ്റ് മേഖലയിൽ പുരോഗതി എന്തെന്നു വച്ചു നോക്കുകയാണെങ്കിൽ യു പി ഐ എന്നത് യു പി ഐ കാരണം യൂണിഫൈഡ് പേയ്മെൻ്റ് ഇൻ്റർഫേസ് ഇത് ആധുനിക ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെൻ്റുകളുടെ കാഴ്ചപ്പാടിൽ ഒരു വിപ്ലവകരമായ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട് എപ്പോഴും പിന്നെ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള എളുപ്പമുള്ളതും പിന്നെ സുരക്ഷിതമായിട്ടുള്ളതും പിന്നെ ഫ്രീ ഫ്രീ ആയിട്ട് ഡിജിറ്റൽ പേയ്മെൻ്റ് സംവിധാനങ്ങൾ വ്യാപകമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ജൻധൻ യോജന പോലുള്ള പദ്ധതികൾ വഴിയായിട്ട് ബാങ്കിങ്ങ് സേവനങ്ങൾ പാവപ്പെട്ടവർക്കും പിന്നെ ഗ്രാമീണ ജനങ്ങൾക്കും പ്രാപികമായിട്ടുണ്ട് പിന്നെ ഫിൻടെക് കമ്പനികളിൽ മുന്നേറ്റവും ഡിജിറ്റൽ വായ്പ്പ സേവനങ്ങളും നിക്ഷേപ പ്ലാറ്റ്ഫോമുകളും ജനപ്രിയമാക്കിയിട്ടുണ്ട് പിന്നെ ധനികാര്യ മേഖലകളിൽ സുതാര്യതയും കലിശുതമായി വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഈ ഘടകങ്ങളൊക്കെയാണ് സംയുക്തമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ വലിയ പങ്കു വഹിച്ച കാര്യങ്ങൾ